ആ ഹലോ സുനിലേ ഞാന് രവിയാണേ ഞാൻ ഈയിടെ എൻ്റെ നമ്പറൊന്ന് അപ്ഡേറ്റ് ചെയ്തായിരുന്നു മാറ്റിയായിരുന്നേ അതെനിക്കൊന്ന് ഡിജി ലോക്കറിലൊന്ന് അപ്ഡേറ്റെയ്യാനായിരുന്നു പഴയ നമ്പറാ കിടക്കുന്നതേ പല കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ടേ ആ എനിക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോള് ഞാനതിനു വേണ്ടിയിട്ടാണ് ആ അതെ അതെ വിശദീകരിക്കുകയും ചെയ്യും നിങ്ങളുടെ സാഹചര്യം നമ്മുടെ സാഹചര്യ ഇതാണ് നമ്പര് മാറ്റിയപ്പോള് നമ്പര് നമുക്ക് ഈയൊരു പ്രക്രിയ എന്താണ് അതിൻ്റെ നമുക്കറിയത്തില്ലല്ലോ ആ നമ്മുടെ ഡിജി ലോക്കറിൻ്റെ നമ്പർ ഡിജി ലോക്കറിലേക്ക് ഈയൊരു സാധനം കൂടെ നമുക്ക് അപ്ഡേറ്റെയ്യായിരുന്നെങ്കിലേ നമുക്കു പിന്നെ ഉപകാരപ്പെടുമായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഡിജി ലോക്കറിൽ കിടക്കുന്നതല്ലേ എപ്പോഴും എന്തേലും എടുക്കേണ്ടി വന്നാല് ആവശ്യമുണ്ടെങ്കിലേ അപ്പോള് ഇതിന് വേണ്ടിയിട്ട് നമുക്കീ ഡിജി ലോക്കറില് ഇത് അപ്ഡേറ്റെയ്യണം എൻ്റെ പുതിയ നമ്പര് അത് ഞാൻ പറയാം ഒമ്പത് എട്ട് നാല് ആറ് മുന്ന് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് അതാണെൻ്റെ പുതിയ നമ്പർ ഈ നമ്പറിലേക്ക് ഞാനിപ്പോള് വിളിച്ചിരിക്കുന്ന നമ്പറിൽ നിന്ന് ഈ നമ്പറിലേക്കൊന്ന് ഈ നമ്പറൊന്ന് ഡിജി ലോക്കറില് എനിക്കൊന്ന് അപ്ഡേറ്റേയ്ത് തരണം അതെ രണ്ട് മൊബൈൽ നമ്പര് ഇന്ന് ചെയ്തു തരാമല്ലോ അല്ലേ നമ്മുടെ നമ്മളൊരു കഫേയില് പോയി ചെയ്യാൻ വേണ്ടിയിരുന്നതാണ് കഫെ അതങ്ങോട്ട് അതേ അ ഞാ ഞാനൊരു കഫേയ ഓക്കേ ശരി ശരി